ഞാൻ മീശോന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കുർത്തി നല്ല കുർത്തി ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതിന് പ്രൈസും അത്രയേ ഉള്ളൂ കറക്റ്റ് ഫിറ്റായിരുന്നു നല്ല മെറ്റീരിയലായിരുന്നു ഒന്നും മോശം പറയാനൊന്നുമില്ല ത്രീ ഹഡ്രഡ് റുപ്പീസേ ഉള്ളൂ ഡെയിലി വെയറാണ് ഞാനെ ഞാൻ അധികവും അതന്നെയാണ് ഇടല് അതിൻ്റെ കളറൊന്നും പോയിട്ടില്ല കളർ അധികമൊന്നും പോയിട്ടില്ല നല്ലൊരു ഇതു തന്നെ നല്ല രീതി നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് നല്ല പ്രോഡക്റ്റാണത് എന്തുകൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കംഫർട്ടാണ് അത്